ഇന്ത്യയിൽ തൊഴിൽ വിപണി എന്ന് പറഞ്ഞാച്ചാൽ വളരെ നല്ലൊരു സ്പോ ഇതാണ് പക്ഷെ ഇന്ത്യയിൽ തൊഴിൽ വിപണിക്ക് കൂടുതൽ സ ബിസ്സിനെസ്സ്കളില്ലേ അതുപോലെയുള്ള പ്രൊഡക്ഷൻ ഫാക്ടറീസ് എന്നിവയുള്ളവ ഇന്ത്യയിലേക്ക് വരണം എന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഇത് ചെയ്യാൻ പറ്റുവൊള്ളു അതെല്ലാം ഇന്ത്യയില് നേരി ഇന്ത്യയില് നേരിടുന്ന പ്രശ്നം എന്ന് വച്ചാൽ പുറത്തുനിന്നുള്ളൊരു സ്ഥാപനം ഇന്ത്യയില് വന്നിട്ട് അവരുടെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുക എന്ന് വച്ചാൽ ചില സംസ്ഥാനങ്ങളിൽ അത് ഒക്കെയാണ് പക്ഷെ ചില സംസ്ഥാനങ്ങളിൽ പുറത്തുനിന്നുള്ളൊരു ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ അവിടെ അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ എടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ അത് ഇവിടെയുള്ള യുവാക്കൾക്ക് തൊഴില് തൊഴില് പൊതുവെ കമ്മിയാകും അപ്പം അൺഎംപ്ലോയിടുകളുടെ എണ്ണം കൂടും അതെല്ലം കാരണം ആകുന്നുണ്ട് ഇന്ത്യയിൽ ഒരുപാട് നല്ല അവസരങ്ങളുണ്ട് തൊഴിൽ ചെയ്യാൻ വേറെ കൺട്രികളെ വച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കുറെ തൊഴിൽ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ മൊത്തം ഇരുപത്തൊൻപത് സംസ്ഥാനങ്ങളുണ്ട് ആ ഇരുപത്തൊൻപത് സംസ്ഥാനങ്ങളും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് സോ അതിന് വേണ്ട ഏത് തരത്തിലുള്ള സംരഭം വേണമെങ്കിലും തുടങ്ങാം ചെ ചില സംസ്ഥാനങ്ങളില് അത് സമ്മതിക്കില്ല അവിടുത്തെ ഗവണ്മെന്റ് ആയാലും എല്ലാം അത് പുറത്തുനിന്നുള്ള ഒരു സ്ഥാപനം വന്ന് ഇവിടെ തുടങ്ങുന്നതിന് അതിലവർക്ക് താൽപ്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ യുവാക്കൾ അൺഎംപ്ലോയ്ഡ് തുടർന്ന് ഇതൊക്കെ അവിടുത്തെ വെല്ലുവിളിയായി പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതാണ് ഇല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ആ ഗവണ്മെന്റ് സമ്മതിക്കാത്തത് കൊണ്ട് അവിടെ അത് വരില്ല അതെല്ലം പ്രധാന പ്രശ്നങ്ങളാണ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് തൊഴിൽ അവസരങ്ങൾ ഉള്ള ഏറ്റവും നല്ലൊരു രാജ്യം ഇന്ത്യ ആണ് അതിന് ഏറെ നല്ല നല്ല ക്രീയേറ്റിവ് ഐഡിയസ് ഉള്ള യുവാക്കൾ ഉള്ള സ്ഥലം ഇന്ത്യ ആണ് പക്ഷെ ആ യുവാക്കളുടെ ഐഡിയ എന്താണോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ സമ്മതിക്കാത്ത ഗവണ്മെന്റും അതുപോലെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ പുറത്തുള്ള കമ്പനികളെ ആശ്രയിക്കേണ്ടി വരും നമ്മള് ഇവിടെ ചെയ്ത് ഇവിടെ ഒന്ന് വിജയിക്കാൻ പറ്റില്ല അപ്പം ഇവിടന്ന് പഠിച്ച കുട്ടികള് പുറത്ത് പോകും അപ്പോൾ അവിടെ പോയി തൊഴിൽ ചെയ്യുന്നു അതിന് അവര് അവരുടെ മെച്ചപ്പെട്ട തൊഴിൽ രീതി അവിടെ കാഴ്ച വക്കുന്നു അവര് പുറത്ത് വർക്ക് ചെയ്യണ കമ്പനിക്ക് അത് എന്ത് കൊണ്ട് ഇവിടെ കാണിക്കാനില്ല അതിവിടുത്തെ സാഹചര്യം ആണ് ആ സാഹചര്യമാണ് വെറുതെ പ്രധാന വെല്ലു വിളി ഇല്ല ഗവമെന്റ് സപ്പോർട്ടും ഒരു പബ്ലിക് സപ്പോർട്ടൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അതെല്ലാം ഇവിടുത്തെ വെല്ലുവിളിയായി വരുന്നു